രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിമൂന്നേ എട്ട് രണ്ടായിരം ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന്